പുസ്തകങ്ങള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് വായനാശീലം ഉള്ളതാണ് പ്രത്യേകിച്ചും മലയാള നോവലുകളാണ് കൂടുതലും വായിക്കാറ് എല്ലാ ദിവസവും രാവിലെ എണീറ്റാല് ചായ കുടിക്കുന്നതോടൊപ്പം പത്ര മാധ്യമം തീര്ച്ചയായിട്ടും വായിക്കും പത്ര മാധ്യമങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തെ പറ്റി അറിയാനും പ്രാദേശികമായ അതുമല്ല ദേശീയ അന്തര്ദേശീയ കാര്യങ്ങളുമൊക്കെ അറിയാന് ഏറ്റവും ഉതകുന്നത് വിശദമായിട്ട് അറിയാന് സാധിക്കുന്നത് മധ്യമങ്ങളിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് സാമൂഹിക ജീവിയായ ഈ മനുഷ്യന് മാധ്യമങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിത്യവും വായിച്ചില്ലെങ്കിൽ അത് വായിച്ചില്ല എങ്കില് എന്തോ ഒരു നഷ്ടം സംഭവിച്ചത് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് അതുപോലെ തന്നെ നമുക്ക് മറ്റ് മാധ്യമങ്ങളുണ്ട് അത് ടിവിയും അത് മറ്റേ മാസികകളും മലയാള മനോരമ പോലുള്ള മാസികകൾ പിന്നെ ഗവേഷണ മാസികകൾ ഒക്കെ കിട്ടുന്നതൊക്കെ ഞാന് വായിക്കാറുണ്ട് വായനയാണ് വായന തിര്ച്ചയായും വായനയാണ് നമ്മളെ വളര്ത്തുന്നത് അപ്പോൾ അതുകൊണ്ട് വായിച്ചില്ലെങ്കില് വളയും വായിച്ചാല് വിളയും എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അത്കൊണ്ട് വായനയിലൂടെ മാത്രമേ മനുഷ്യന് മുന്നേറാന് സാധിക്കുകയുള്ളൂ